മലയാളഭാഷയെ നമ്മള് ഹിന്ദിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ

ഹിന്ദി എന്ന് പറയണ ഒരു ഭാഷ ഔദ്യോഗിക ഭാഷയാവാൻ കാരണം സത്യം പറയാണെങ്കി ൽ ഹിന്ദി ഒരു ഒരു എന്താ പറയുക സംസ്ഥാനത്തിൻ്റെ ഭാഷ അങ്ങനെ പറയാൻ പറ്റില്ല എന്താ പറയുക ഹിന്ദി നോർത്തില് അതായത് നോർത്ത് അതായത് ഇന്ത്യയില് നോർത്ത് ഭാഗത്തില് സംസാരിക്കുന്ന അതായത് കുറേ സംസ്ഥാനങ്ങള് ഈ സംസാരിക്കുന്ന ഹിന്ദി എന്ന ഭാഷ അത് ഒരു എന്താ പറയുക അതുകൊണ്ടാണ് അതിനെ ദേശീയ ഭാഷയായിട്ടത് നമ്മള് കണക്കാക്കുന്നത് ഇപ്പം മലയാള ഭാഷാന്ന് പറയുമ്പോൾ മലയാളികള് അല്ലെങ്കി ഒരു കേരള ഒരു സംസ്ഥാനം അങ്ങനെ ഒരു ഇതിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭാഷയാണ് പക്ഷെ കേരളത്തിലുള്ള ആൾക്കാരും ഒട്ടനവധി ആൾക്കാരും പല പല പ്രദേശങ്ങളില് പോയിട്ട് ഈ മലയാളഭാഷ പ്രചരിപ്പിക്കുന്നൊണ്ട് അല്ലെങ്കിൽ അവര് പോകുന്ന സ്ഥലത്തൊക്കെ ഈ മലയാള ഭാഷ പ്രചാരത്തിലെത്തുന്നുണ്ട് നേരെ മറിച്ച് ഹിന്ദി എന്ന് പറയുമ്പോൾ ഹിന്ദി ഭാഷക്ക് ഒരു സംസ്കാരമോ എങ്ങനെയൊന്നുംപറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മലയാള ഭാഷായെ ഒരു സംസ്കാരികമായിട്ട് വൈകാരികമായിട്ട് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ മലയാളഭാഷ ഹിന്ദി ഭാഷയെ നോക്കുമ്പോൾ അത് അതില് നമുക്ക് സംസ്കാരം അങ്ങനെ കാണാൻ പറ്റില്ല കാരണം എന്ന് പറയുമ്പോ കോമൺ ആയിട്ട് അത് കുറേ ആൾക്കാര് കോമണ് ആയിട്ട് സംസാരിക്കുന്നൊരു ഭാഷയായത് കൊണ്ടാണ് അതിനെ നമ്മുടെ ദേശീയ ഭാഷയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്